മലയാള ഭാഷയില് സംസ്കൃതത്തില് നിന്നും ഉരുത്തിരിഞ്ഞ ഭാഷയാണ് മലയാള ഭാഷ അത് ഒത്തിരി ഇപ്പോള് കാലക്രമേണ അതിന് വ്യത്യാസങ്ങള് വികാസങ്ങളുണ്ടായി കൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്തൊക്കെ ഭാഷകള് ഇപ്പോഴത്തെ ആള്ക്കാര്ക്ക് ആദ്യത്തെ ആദ്യത്തെ കാലത്തെ അവരെഴുതുന്നതും വായിക്കുന്ന പറയുന്നതൊക്കെ മനസ്സിലാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോള് ഇപ്പൊഴത്തെ ഭാഷയാണെങ്കില് ഈ ന്യൂ ജെന് ഭാഷാ പലതും പഴയ ആള്ക്കാര്ക്ക് മനസിലാകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോള് അങ്ങനെ ഒത്തിരിയൊത്തിരി വികാസങ്ങള് സംഭവിച്ചു വികാസങ്ങള് മലയാള ഭാഷയ്ക്ക് വികാസങ്ങളുണ്ടായിക്കൊണ്ടിരിക്കിന്ന്